നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് കുഴൽ കിണറുകൾ വരുന്നുണ്ട് കാരണം സാധാരണ കിണറുകളിൽ നിന്നുള്ള വെള്ളം ജലം കിട്ടാത്തത് കൊണ്ടാണല്ലോ ഈ കുഴൽ കിണർ കുഴിക്കുന്നത് പക്ഷെ കുഴൽ കിണർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ സമീപത്തൊക്കെ കുഴൽ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്ന വീടുകളുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഗ്രാമത്തിൽ ഒരു ഒരു കിണറുണ്ട് പഞ്ചായത്ത് കിണറുണ്ട് പഞ്ചായത്ത് കിണർ നല്ല ധർമ്മ കിണർ എന്നാണ് എല്ലാവരും അതിനെ പറയുക അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല ഒരു ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കാരണം ഈ വേനൽ കാലത്ത് എല്ലാവരുടെയും കിണറുകളിൽ വെള്ളം കുറയുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കുളിക്കാനും അലക്കാനും ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ ഈ ഈ ഗ്രാമത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ആ കിണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കിണർ എല്ലാ മഴ മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് അത് വളരെ അധികം വൃത്തിയാക്കാറുണ്ട് അതിൻ്റെ പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട് ആ കിണറിന് ഒരു നല്ല എന്താണ് കമ്പി വച്ചിട്ടുള്ള ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ള അനാവശ്യമായിട്ടുള്ള സാധങ്ങൾ ഒന്നും അതിലേക്ക് അതിലേക്ക് വീഴാതെ സംരക്ഷിക്കാൻ നല്ല ഒരു നെറ്റ് കിണറിന് ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു കിണറെന്ന് പറയുന്നത് അതിൻ്റെ സമീപത്ത് എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ചപ്പു ചവറുകളൊന്നും ഇടാതെ നല്ല വൃത്തിയായിട്ടാണ് അത് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്